വയനാട് ജില്ലയിലെ ആരോഗ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാട് ജില്ലയിൽ ആകെയൊരു മെഡിക്കൽ കോളേജ് ആണുള്ളത് അപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാനന്തവാടി ആണ് മെഡിക്കൽ കോളേജ് ഉള്ളത് പിന്നെയുള്ളതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വൈത്തിരിൽ താലൂക്കാശുപത്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ അവിടെ നമ്മളങ്ങനെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടുള്ളവർക്ക് എളുപ്പമായിരിക്കും നമുക്ക് കൂടുതലായിട്ടും മാനന്തവാടി ആശുപത്രിയിലേക്കാണ് പോകാൻ എളുപ്പം ബട്ട് പക്ഷേ എങ്ങനെന്നു വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ശാസ്ത്രക്രിയക്കൊക്കെ ആൾക്കാരാരെലും പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താന്നു വെച്ചുകഴിഞ്ഞാൽ അവർ നേരെ അടുത്ത മെഡിക്കൽ കോളേജിലേക്ക് അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുവാണ് പതിവ് കാരണം എന്താന്നു വെച്ചുകഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർമാരുണ്ടാവില്ല പിന്നെ അവിടുത്തെ സാധനങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്താ പറയാ നമ്മളിപ്പൊരു മെഡിക്കൽ കോളേജ് ആണെങ്കിൽ സാധാരണ റെഫർ ചെയ്യാത്തത് ആണ് പക്ഷേ കേരളത്തിൽ ഇവിടെ മാത്രമായിരിക്കും ഇങ്ങനെ വേറൊരു മെഡിക്കൽ കോളേജിലേക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് കേസോ എന്തേലും വന്നു കഴിഞ്ഞാൽ റെഫർ ചെയ്യുന്ന ഏക ഹോസ്പിറ്റല് മാനന്തവാടി ആയിരിക്കും പിന്നെ സ്പെഷ്യലിറ്റി കെയർ ഒക്കെ കുറവാണ് ഇപ്പോൾ കൂ ഇപ്പൊരു പുതിയതായിട്ട് നമ്മുടെ ഒരു ഇത് വന്നിട്ടുണ്ട് അതായത് നമ്മളെ ക്യാഷുവാലിറ്റി വന്നിട്ടുണ്ട് പക്ഷേ അതെങ്ങാനാന്നു വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു നാലോ അഞ്ചോ ബെഡേ ഉണ്ടാവുള്ളു കാരണോന്നു വെച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ള ബെഡുകളൊന്നുമില്ല പിന്നെ ഡോക്ടർമാരെന്നു പറഞ്ഞാൽ പുതിയ പുതിയ ഡോക്ടർമാരാണ് അപ്പം നല്ല രീതിയിലുള്ള ചികിത്സ കാര്യങ്ങളൊന്നും അവിടെ ലഭിക്കുന്നില്ല പനി വന്ന് ചെറിയ ചെറിയ കുട്ടികളൊക്കെ മരി മരിക്കുന്നുണ്ട് അപ്പോൾ പനി വന്നിട്ടൊക്കെ മരിക്കുവാന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഇതായിട്ടാണ് മാറിയിരിക്കുന്നത് കാരണമെന്താന്നു വെച്ച് കഴിഞ്ഞാൽ പനിന്നു പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും വരുന്ന ഒരസുഖമാണ് ഇവിടെ വന്നിട്ട് ഒരു നമുക്ക് പനിക്ക് പോലും ഇവിടെ ചികിത്സ നേടാൻ പറ്റാത്ത ഒരിതാണ് വരുന്നത് അപ്പം നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം വരണമെങ്കിൽ മാനന്തവാടി ഹോസ്പിറ്റല് കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടിയിരിക്കുന്നുന്ന് എനിക്ക് തോന്നുന്നു